എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണെന്നു വച്ചാൽ എന്റെ എനിക്കൊരു ചെറിയ മകളാണ് ഉള്ളത് മകൾ കളിക്കുന്നതും ചിരിക്കുന്നതും ചെറിയ കുറുമ്പും അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം ആണ് ചില സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും ഇവളുടെ ഒരു പ്രസൻസ് ഇവളെ ഇവളുടെ ഒരു കളിയും കൊഞ്ചലും കരച്ചിലും ഇതൊക്കെയാണ് എന്റെ സന്തോഷം